ഹലോ ആരാണ് എന്താണ് താങ്കൾക്ക് വേണ്ടത് എന്താണ് താങ്കൾക്ക് വേണ്ടത്

എങ്ങനത്തെ തരത്തിലുള്ള ഫുഡാണ് വേണ്ടത് താങ്കൾക്ക് അത് ശരി സീഫുഡ് രീതി ആണോ താങ്കൾക്ക് വേണ്ടത് അതോ സാധാരണ ട്രഡീഷണൽ ഊണായാലും മതിയോ അത് ശരി അതായത് സീഫുഡിനാണ് പേര് കേട്ടിട്ടുള്ളത് സീഫുഡ് ഫുഡെരിയ എന്നുപറയുന്ന നമ്മളുടെ കുട്ടനാട് ആയതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഫിഷുകൾ നമ്മൾക്ക് കിട്ടും ഇവിടെ കരി കരിമീൻ നെയ്മീൻ അങ്ങനെ കുറച്ച് വരാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും ആവോലിയൊക്കെ കിട്ടും നമ്മൾക്ക് ഇവിടെ റേറ്റ് ഒന്നും അങ്ങനെ പ്രശ്നമല്ല ഇവിടെ അടുത്ത് തന്നെ കിട്ടും നമ്മൾക്ക് ഓട്ടോ പിടിച്ച് പോകാനുള്ള സ്ഥലം ഉള്ളു കുട്ടനാട് ജംക്ഷനിൽ തന്നെ ആണ് എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ ഹൈജീനുമാണ് നല്ല ഫുഡ് തന്നെ ആണ് ഉള്ളത് നമ്മൾക്ക് കുട്ടനാട് ജംക്ഷനിൽ നിന്ന് ആരോടു ചോദിച്ചാലും കിട്ടും ഹരിത ഫുഡ് എന്ന് പറഞ്ഞാൽ മതി ഹരിത ഫുഡ് റസ്റ്റോറെന്റ് എന്ന് പറഞ്ഞാൽ മതി

നിങ്ങൾ നേരെ കുട്ടനാട് ജംക്ഷനിലേക്ക് ബോട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വന്നാൽ മതി റേ റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആവോലിയുടെ കറിക്ക് ഒക്കെ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അത്രയേ വരുന്നുള്ളൂ ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഇനി ആ എങ്ങനെ താങ്കൾ അല്ലേ പറഞ്ഞത് എക്സ്പെൻസീവ് ആണെങ്കിലും കുഴപ്പമില്ലെന്ന് ഓഫർ ഒന്നൂല്ല ഇല്ല ഇല്ലില്ലില്ല ഓഫർ ഇല്ല വേറെ എന്തെങ്കിലും ആ സീഫുഡിന് ആ രീതിയിൽ ആ താമസം താമസം അവിടെ തന്നെ റസ്റ്റോറന്റ് ഉണ്ട് അവിടെ തന്നെ ആണ് ഈ ഫുഡിൻ്റെ കാര്യം ഉള്ളത് ഫിഷ് റോസ്റ്റും അവിടെ പേരുകേട്ടതാണ് അതേ അതേ അതേ അതേ അതേ അവിടെ തന്നെ ആ റേറ്റ് പറയുമ്പോൾ ഏകദേശം ഒരു ദിവസം ആ റൂമിന് രണ്ടായിരം രൂപയാണ് ആ ഫുഡ് തന്നെ കൂടുതൽ വാങ്ങിച്ചുവെന്ന് വച്ചാൽ ഫുഡിന് പേര് കേട്ട സ്ഥലമാണ് ആ പ്ലേയ്സിൽ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ സീഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ആ കുഴപ്പില്ല അവിടെ അവിടെ കുറച്ച് കൂടി സീനറി ആണ് അത് നല്ല സൈറ്റ് കാണാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ട് അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ബീച്ച് അല്ല ഇവിടുള്ളത് കൂടുതലും റിവർ ആണ് വള്ളം കളി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും ഇനി വരാൻ വരുന്നത് പിന്നെ ഈ പേരുകേട്ടത് എന്താണ് എന്ന വച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ഒരു

അപ്പോൾ ഏകദേശം ഒരു സിക്സ്തർട്ടി കഴിയുമ്പോഴേക്കും ആകും സൺസെറ്റ് താങ്കൾ ഇപ്പോൾ ആ എവിടെ എത്തിട്ടുണ്ട് കുട്ടനാട് എത്താണ് എന്നുവച്ചാൽ ഞാൻ വേണമെന്ന് വച്ചാൽ സഹായിക്കാം സാറിനെ നല്ലതാണ് നല്ല നല്ലതാണ് നല്ല അൾക്കാർ ആണ് ഇല്ലില്ലില്ലില്ലില്ല ഓ ശരി ഓ ശരി ശരി ശരി